ഹല് ഹലോ ലക്ഷ്മി ഏജൻസി അല്ലേ അ ഞാൻ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അതായത് നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ ചെറിയൊരു ടൂർ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കുഞ്ഞ് കുട്ടികളെക്കൊണ്ടേ മൂന്ന് ഫാമിലി ആണ് അപ്പം എല്ലാവർക്കൂടെ ഒരു എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു പത്ത് പത്ത് പേർ അത്രയേ വരത്തുള്ളൂ കുഞ്ഞു കുട്ടികളും വലിയവരും കൂടെ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒരു ആറ് മണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു ഒൻപത് ഒൻപത് പത്ത്മണി ആ ഒരു ടൈം ആവുമ്പോൾ തിരിച്ച് വരാം ചെറിയൊരു ടൂർ ആണ് കാരണം ഇവിടെ ചെറിയൊരു ലുലു മാൾ പിന്നെ ഹാപ്പി ലാൻഡ് ഇവിടെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഫുഡ് ഒക്കെ പുറത്തുനിന്നായിരിക്കും അന്നത്തെ ദിവസം പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ചെറിയ ഷോപ്പിങ്ങ് ഒക്കെ ഉണ്ട് പിന്നെന്തുവാണ് വേറെ വലുതായിട്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെറിയ മിനി ബസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് റേറ്റ് കൂടുതലാരിക്കും അല്ലേ അതായത് ഈ അയ്യായിരത്തിയഞ്ഞൂറ് നാലായിരത്തിയഞ്ഞൂറ് ഒക്കെ വരുമോ ആണല്ലേ ഓ അപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് അതൊക്കെ പോരെ ഒരു ദിവസത്തെ അല്ലേ ഉള്ളൂ വൈ രാവിലെ പോയിട്ട് വൈകിട്ട് വരുമല്ലോ അപ്പോൾ നാലായിരത്തിയഞ്ഞൂറൊക്കെ ഓക്കെ ആണോ ഏട്ടാ ഓക്കെ ആ അപ്പം നാലായിരത്തഞ്ഞാ അഞ്ഞൂറ് മതി പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഡി ജെ ലൈറ്റ് ഒക്കെ വേണം കാരണം കൊച്ചു കുട്ടികളായതുകൊണ്ട് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡി ജെ ലൈറ്റ് ഒക്കെ വേണം പിന്നെ നല്ല പാട്ടുകളൊക്കെ ഇടണം പിന്നെ നേരത്തെ നമ്മൾ ഒരു ബസ് വിളിച്ചായിരുന്നു എപ്പോഴും വിളിക്കുന്നത് തന്നെയാണ് പക്ഷേ അവർ ഇപ്പ്രാവശ്യം പൈസ കുറച്ച് കൂട്ടി പറഞ്ഞതാണ് പിന്നെ ഈ നിങ്ങളെ വിളി ചേട്ടനെ വിളിക്കാനുള്ള കാരണം പിന്നെ അപ്പം ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിളിക്കാം ഓക്കെ അപ്പം ഒരു ഒന്നൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരാൻ പറ്റുമോ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി നാനൂറ് ഒക്കെ ആക്കി തരാൻ പറ്റുമോ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു നാലായിരത്തി നാനൂറ് ഒക്കെ പോരെ ഏട്ടാ ഓക്കേ അപ്പം ഞാൻ വിളിക്കാം കേട്ടോ